ഞാൻ പണി എടുത്തോണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവുന്ന എൻ്റെ ഒരു അഭിലാഷങ്ങളിൽ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിലൊന്നാണ് ബിഎംഡബ്ല്യൂവിൻ്റെ കാറെന്ന് പറയുന്നത് ഞാനതിന് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ചോണ്ടിരിക്ക ആ കാറ് മേടിക്കാൻ വേണ്ടിട്ടുള്ള പരിശ്രമം ഞാൻ നിർത്താതെ അതിപ്പോൾ ഉറക്കത്തിലാണെങ്കിലും അതേപോലെ ഉറങ്ങാൻ സമ്മതിക്കുന്ന സമ്മതിക്കാത്തതാണ് ലക്ഷ്യം എന്ന് പറയുന്നത് അതേപോലെ ആ ലക്ഷ്യത്തിൻ്റെ പിന്നിലാണ് ഞാൻ ഇപ്പോഴും ഓടി കൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്യമാണ് എന്നെ ആ ഇതിൽ എത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം